ഹലോ ട്രാഫിക്ക് ആ പറഞ്ഞുകൊള്ളൂ ആ എപ്പോഴാണീ സംഭവം നടന്നത് ആ അപ്പം ഇന്നലെയെന്ന് പറയുമ്പോള് ആറാം തീയതി അല്ലേ ഇത് ആറാം തീയതി ഉച്ചയോടെ വണ്ടിയുടെ നമ്പര് വല്ലതും അറിയാമോ കെ എൽ സീറോ വൺ സീറോ സീറോ എയ്റ്റ് ആ ഓക്കെ അതിലേതാണ് ഇതിൻ്റെയൊക്കെ പ്രൊസീജ്യേസിനുവേണ്ടി നിങ്ങള് സ്റ്റേഷൻ വരെയൊന്ന് വരേണ്ടിവരും നിങ്ങളുടെ വണ്ടിയുടെ നമ്പരെന്താണ് കെ എൽ സീറോ വൺ റ്റു വൺ സീറോ ഓക്കെ ആ ഇത് കേസായിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാനാണോ പ്ലാൻ ആ ഓക്കെ ആ അടുത്തുള്ള പോലീസ് സ്റ്റേഷനേതാണ് നിങ്ങളെവിടെയാണ് താമസിക്കുന്നത് ആ ഓക്കെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷന് പരിധിയിലുള്ള നടന്നതല്ലാത്തതുകൊണ്ടും കുട്ടിക്കാനത്ത് നടന്നതുകൊണ്ടും ഇവിടുത്തെ ആ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനെന്ന് പറയുന്നത് പെരുവന്താനത്താണ് നിങ്ങള് വിളിക്കുമ്പോള് അങ്ങോട്ട് വരേണ്ടിവരും ആ പിന്നെ വണ്ടിയുടെ മോഡലും ഏതാണെന്നൊക്കെ അറിയാമോ അറിയില്ല നിങ്ങളുടെ വണ്ടിയുടെ മോഡലോ ആ അതും അതിന്റെയൊരു പ്രിൻറ്റൗട്ടുമെടുത്ത് ഇനി ഇത് കൊണ്ടുവന്നാല് മതി പിന്നെ നിങ്ങളുടെയൊരു ഒഫിഷ്യൽ കംപ്ലെയ്ൻറ്റ് ഒരു ലെട്ര് പോലെ എഴുതി കംപ്ലെയ്ൻറ്റ് കൊണ്ടുതരേണ്ടതാണ് സൈനിട്ട് ഇത് എഫ് ഐ ആര് ഫയല് ഫയല് ചെയ്യുമ്പോള് അത് നമുക്കാവശ്യം വരും

ഉവ് വണ്ടിയുടെ വണ്ടിയുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും പിന്നെ നിങ്ങളുടെ ലൈസെൻസ് വണ്ടി രജിസ്ട്രേഷൻ ഇൻഷുറൻസ് വണ്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യൂമെൻസും കൊണ്ടുവരണം നിങ്ങള് മറ്റ് പുകപരിശോധന ഉണ്ടോ ഇത് അതൊക്കെ എല്ലാം കൊണ്ടുവരണം കാരണം ഇത് ഇല്ലെങ്കില് നിങ്ങളുടെ വണ്ടിക്കും ഇതുപോലെ രജിസ്റ്ററൊന്നും ചെയ്തിട്ടില്ലെങ്കില് അല്ലെങ്കില് ഇൻഷുറൻസ് കേസാകാന് ചാൻസുള്ളതാണ് പിന്നെ ആധാർ കാഡും പാൻ കാഡും കൊണ്ടുവരേണ്ടതാണ് ആ പെരുവന്താനം സ്റ്റേഷനിലാണ് വരേണ്ടത് ഇത് ഞാന് ഇവിടെ സ്റ്റേഷനില് റിപ്പോര്ട്ട് ചെയ്തുകൊള്ളാം ഞാനും ആ അന്ന് അവിടെ ഹാജരാകാന് നോക്കാം അല്ലെങ്കില് റിപ്പോര്ട്ട് എൻ്റെ സ്റ്റാഫ് അവിടെ കാണും അപ്പോള് അത് ഞാൻ റിപ്പോര്ട്ട് ചെയ്തുകൊള്ളാം ഇത് വിളിക്കുമ്പോള് ഉടനെ വരാൻ തന്നെ റെഡിയായിരിക്കണം ആ ടൈം ടൈം നമുക്കൊരു ടെൻ ടെൻ എ എം ആകുമ്പോഴാണല്ലോ ഒഫിഷ്യലി എല്ലാം ഇത് ചെയ്യുന്നത് നമുക്ക് ലെവൺ എ എം ആകുമ്പോള് കഴിയുന്നതും വരാൻ നോക്കണേ ടെൻത്ത് ടെൻത്തിന് നോക്കാം ഡേറ്റന്നാണ് ഫിക്സ് ചെയ്യുന്നത് ഡീറ്റെൽസ് ഇനി ഇയാളുടെ പേരെന്താണ് അഭിനവ് ഓ ഫുൾ നേമൊന്ന് പറയാമോ അഭിനവ് കറൻലി എന്ത് ചെയ്യുന്നു അഭിനവ് കറൻലി എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുകയാണോ പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആ ഓക്കെ ആ ആ ഓക്കെ അഭിജിത്ത് ഞാൻ ബാക്കി പ്രൊസീജ്യേസിന് വിളിച്ചുകൊള്ളാം താങ്ക് യൂ